ആ ഞാൻ കുറെ നേരം ആയല്ലൊ വെയിറ്റ് ചെയ്ത് നിക്കണൂ ആ അല്ല എപ്പളും നിങ്ങളെ ആണ് വിളിക്കാറ് പക്ഷെ കുറെ നേരമായി വെയിറ്റ് ചെയ്ത് നിക്കണൂ ഒരു മണിക്കൂർ ഒക്കെ ആയി ഫ്രിഡ്ജിൽ എന്താച്ചാൽ ഇപ്പം രണ്ട് മൂന്ന് ദിവസം ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ നല്ലൊരു ഒരു ശബ്ദം ഉണ്ടായും കൊണ്ട് ഇരിക്കാണ് ഓൺ ആക്കീം കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഉള്ളിന്ന് ആണെന്നാണ് തോന്നണത് എന്താച്ചാൽ ഓൺ ആക്കി നമ്മൾ ആണെങ്കിൽ ഫ്രിഡ്ജ് യൂസ് ചെയ്യാതിരിക്കൊന്നും ഇല്ലല്ലൊ ഏത് സമയവും ഫുൾ ടൈം ഓണായിന് പക്ഷെ അതിനാത്തിന്ന് ഒരു നോയ്സ് നന്നായിട്ട് ഒരു സൗണ്ട് ഇങ്ങനെ വന്നു കൊണ്ട് ഇരിക്കാ അല്ല അല്ല നമ്മൾ ആ നമ്മൾ ഈ കൂളിംഗ് ഉണ്ടാകുമ്പോൾ ഒരു സൗണ്ട് ഇടയ്ക്ക് ഉണ്ടാവൂലെ അത് കുറച്ചും കൂടെ ഒന്നും കൂട സ്ട്രോംഗ് ആയിട്ട് ഉള്ള സൗണ്ട് എപ്പോഴും വന്നോണ്ട് ഇരിക്കാ ചെയ്യുന്നത് അങ്ങനെ അല്ല അത് ഇടക്ക് ഒരു സൗണ്ട് അങ്ങനെ ടെക് ടെക്ന്ന് ശബ്ദം ഒക്കെ വരുന്നുണ്ട് അല്ല ഉള്ളിന്നാണീന്നാണ് തോന്നണെ അമ്മാ കേൾക്കുമ്പം നമുക്ക് അങ്ങനെ തോന്നണെ ഉള്ളിന്നാണോ പുറത്തിന്നാണോന്ന് ഒന്നും ചോദിച്ചാൽ അങ്ങനെ അങ്ങട് അറിയുന്നില്ല ഇങ്ങനെ അപ്പം കൂളിംഗും ആവണില്ല സാധനങ്ങൾ ഒന്നും കൂളിംഗ് ആവണില്ല കമ്മി ആണ് ഒരു ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ നല്ല തണുപ്പ് ഒന്നും വരുന്നില്ല സാധനങ്ങൾ ഒക്കെ കേട് വന്നോണ്ട് ഇരിക്കുന്നുണ്ട് ആ ഓവർലോഡ് പറഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടാവുള്ളൂ ഫ്രീസർ എപ്പളും ഫുൾ ആയിരിക്കും എന്തേലും സാധനങ്ങൾ അധികം ഇല്ലാതിരിക്കിന്നില്ല ഫ്രീ ആകാറില്ല ഫ്രിഡ്ജ്

ഏയ് ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ചെയ്യാറില്ല നമ്മുടെ ബാക്കിൽ ഇള്ള ആ ബോക്സ് ഒക്കെ എപ്പോഴും ക്ലീൻ ആക്കൊക്കെ ചെയ്യണതാണ് അതിൽ ഒന്നും വെള്ളം നിൽക്കാറൊന്നും ഇല്ല പക്ഷെ ഇപ്പം അത് എങ്ങനെ സൗണ്ട് വന്നീന്ന് നോക്കിയപ്പം കുറച്ച് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ തൂത്ത് കളഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഇല്ലില്ല അങ്ങനത്തെ ഒരു ചാൻസ് ഒന്നും ഉണ്ടായിട്ട് ഇല്ല അതിന് ഉള്ള ഒരു ചാൻസ് ഒന്നും ഉണ്ടായിട്ട് ഇല്ല ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു ചാൻസ് ഒന്നും ഉണ്ടായിട്ട് ഇല്ല അപ്പം ഫ്രിഡ്ജ് കിച്ചണിൽ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ അങ്ങനെ അങ്ങനെ വരാറൊന്നും ഇല്ല പിന്നെ കുട്ടികൾ അങ്ങനെ വരാറുള്ള കുട്ടികളും ഇല്ല ഇനി അങ്ങനെ ഒന്നും അല്ല സംഭവം എന്താണെന്ന് അറിയില്ല അത് ഇങ്ങനെ ഒരു നോയ്സ് നന്നായിട്ട് വന്ന് കൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമുക്കും ഡിസ്റ്റർബൻസ് ആണ് കേക്കണും ഉണ്ട് പിന്നെ കൂളിംഗ് ആവണില്ല ഇടക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക ശബ്ദം ഒക്കെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ആ ശരി ശരി ഒന്ന് നോക്കൂട്ടോ ആ ശരി